ഞങ്ങളുടെ സമൂഹത്തിൽ രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ അംഗൻവാടി വഴികളും അതുപോലെത്തന്നെ പഞ്ചായത്തുകൾ വഴിയും ഗവൺമെൻ്റ് നിയോഗിച്ചിട്ട് നടത്തുന്നതായിട്ട് കണ്ടു വരുന്നുണ്ട് ഏറ്റവും കൂടുതലായിട്ട് ബോധവത്കരണം തന്നിട്ടുള്ളത് ഡെങ്കിപ്പനി അതുപോലെത്തന്നെ മലമ്പനി അതുപോലെത്തന്നെ ജലദോഷം തുടങ്ങിയ രോഗങ്ങൾക്കാണ് കാരണം ഇവയെല്ലാം വളരെ പെട്ടന്ന് തന്നെ ബാധിക്കാനും അവ ബാധിച്ചവർക്ക് മരണം വരെ സംഭവിക്കാനുമുള്ള കാരണമുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബോധവത്കരണ ക്ലാസ്സുകൾ ഗവൺമെൻ്റ് ഏറ്റവും കൂടുതലും ഏറ്റവും വിനിയോഗപരമായ രീതിയിൽ തന്നെ മറ്റു പ്രദേശങ്ങളിലെ നഗരപ്രദേശങ്ങളിലും ധാരാളമായി കണ്ടു വരുന്നു പ്രധാനമായും അംഗൻവാടികൾ വഴിയാണ് ഇയൊരു പ്രദേശങ്ങൾ ഈയൊരു വിശദാംശംങ്ങൾ ഗവൺമെൻ്റ് നല്കിയിട്ടുള്ളത് അംഗൻവാടി വഴിയാണ് മറ്റുള്ളവരിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് എത്തുകയും അതുപോലെത്തന്നെ സർവ്വേ വഴി വരികയും ഞങ്ങളുടെ വീടുകളിൽനിന്ന് ഇത്തരത്തിലുള്ള വെള്ളം കെട്ടി വയ്ക്കുകയോ അല്ലെങ്കിൽ കെട്ടി നിൽക്കുന്നതോ ആയി കണ്ടിട്ടുണ്ടെങ്കിൽ തക്കതായ പിഴകൾ അടിച്ച് ആ ഒരൂ വീടും പരിസരവും ശുദ്ധിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ട്